ഞാൻ ഓൺലൈനിൽ കുറെ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ബുക്ക് ചെയ്തിരുന്നു അത് നല്ല സാധനങ്ങളാണ് മല്ലി മുളക് മഞ്ഞൾപ്പൊടി മുളക്പൊടി അങ്ങനെയുള്ള മസാലപ്പൊടികളെല്ലാം ഇട്ടുവെക്കാൻ നല്ലതാണ് കാണാനും ഭംഗിയാണ് പക്ഷേ അതിങ്ങനെ നിരത്തി വെച്ചാൽ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പക്ഷേ അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ലാന്നു പറയുന്നത് കൊണ്ട് അത് അത് മാത്രമേ ഉള്ളൂ അതിൽ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അല്ലാണ്ട് കാണാനൊക്കെ നല്ലൊരു ഇതുള്ള ഇതാണ് പ്ലാസ്റ്റിക്